ഇത് ബസ്സ് ഡ്രൈവർ അല്ലേ ആ എനിക്ക് ഒന്ന് ബാംഗ്ലൂർ വരെ പോകാൻ വേണ്ടിയിട്ട് ആയിരുന്നേ അപ്പോൾ എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആയിരുന്നു അപ്പം ബുക്ക് ചെയ്യണോ എന്ന് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ആയിരുന്നു ബുക്കിംഗ് ആയിരിക്കും അല്ലേ ബുക്ക് ചെയ്യണം അല്ലേ ഓക്കെ അപ്പോൾ നേരത്തെ നമ്മൾ ഇപ്പോൾ ഇന്ന് ബുക്ക് ചെയ്യണോ നമ്മൾ ആ നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ

ആ ഓക്കെ ഓക്കെ ഒന്ന് ചെക്ക് ചെയ്യുവോ ഇപ്പോൾ ഏതൊക്കെ നമുക്ക് സ്ലീപ്പർ ഉണ്ടോ ആ എന്നാൽ സ്ലീപ്പർ മതി വിൻഡോ സീറ്റ് കിട്ടൂല്ലേ ആ ഓക്കെ അപ്പോൾ ഉണ്ടാവും അല്ലേ ആ ഓക്കെ ഓക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ ഏതൊക്കെ സീറ്റ് ആണ് എത്ര ഉള്ളതെന്ന് ഒക്കെ

ആ ഓക്കെ ഓക്കെ ആ അതെ ഈ നമ്പറിൽ ആ ഇതിൽ ഇപ്പോൾ അയച്ചേക്കുന്നതിൽ എനിക്ക് ഫ്രണ്ടിൽ നിന്ന് നാലാമത്തെ റോയിൽ ഉള്ള സീറ്റ് റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഉള്ള ആ വിൻഡോ സീറ്റ് മതി അത്ര ആണ് വരുന്നത് അല്ലേ അത് നമ്മൾ ഇപ്പോൾ പേ ചെയ്യണോ പേ ചെയ്യണം അല്ലേ അപ്പോൾ ഇത് ഈ നമ്പറിലേക്ക് ഇട്ടാൽ പോരേ കാണിച്ചാൽ മതി അല്ലേ അപ്പോൾ കണ്ടക്ടർ കണ്ടക്ടറെ അടുത്ത് നമ്മൾ ഇത് കാണിച്ചാൽ മതിയാവുമായിരിക്കും അല്ലേ വേറെ ഒന്നും കാണിക്കേണ്ടല്ലോ നമ്മൾ ആധാർ കാർഡ് അങ്ങനത്തെ വെരിഫിക്കേഷനും കാര്യങ്ങൾ ഒന്നും ഇല്ലല്ലോ കാണിച്ചാൽ മതി അല്ലേ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ അത് ഒന്ന് എനിക്ക് ഇട്ടുതരുവോ ഞാൻ ഇപ്പം എമൗണ്ട് ഞാൻ പേ ചെയ്തുതരാം എത്രയാണ് ടു തൗസൻഡ് ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ആ എമൗണ്ടും കൂടെ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്തേക്കണം കേട്ടോ ആ ഇരുന്നൂറ്റി ചില്ലറ അത് ഒന്ന് എമൗണ്ട് എന്തായാലും എനിക്ക് ഇട്ട് തന്നേക്ക് ഞാൻ അപ്പോൾ ആ കറക്റ്റ് എങ്ങനെ ആ ഓക്കെ ഓക്കെ ഓക്കെ ഒന്ന് ഒന്ന് ഇട്ട് തന്നേക്ക് ഓക്കെ ഓക്കെ എന്നാൽ ഓക്കെ ഓക്കെ